നമ്മുടെ പ്രദേശത്തിപ്പോൾ പുഴകളും കുളങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് അപ്പോൾ അതില് നമുക്ക് നാടൻ മത്സ്യങ്ങൾ അതുപോലെ എന്താ പറയുക പുഴ മീനുകളൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് ഇപ്പൊൾ കരിമീനായാലും നത്തലായാലും പിന്നെ പരൽ അതുപോലത്തെ പിന്നെ നമുക്ക് ഞണ്ട് പിന്നെ വരാൽ ബ്രാൽ പിന്നെ സിലോപ്പി പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ മീനുകളുള്ള പിന്നെ അങ്ങനത്തെയുണ്ട് നത്തോലിയുണ്ട് എന്താ പറയുക അങ്ങനത്തെ മീനുകളാണ് നമ്മള് ഇവിടെ കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതില് ഇപ്പൊൾ ആവശ്യക്കാർ എന്നു പറയുമ്പോൾ ബ്രാലിനെയൊക്കെ നല്ല ആവശ്യക്കാരുണ്ട് പിന്നെ കരിമീനിനെ നല്ല ആവശ്യക്കാരുണ്ട് പിന്നെ ആ ബാക്കി സിലോപ്പിയയിലും മൊയ്യായലും അങ്ങനെ കുറെ മീനുകളുണ്ട് പക്ഷേ നല്ല ടെസ്റ്റ് എന്നുപറയുമ്പോൾ കരിമീൻ അങ്ങനത്തെ മീനുകളായിട്ടാണ് കൂടുതൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അപ്പൊൾ അതിന് കൂടുതലായിട്ടുള്ള എന്താ പറയുക ആവശ്യക്കാരുണ്ട് പിന്നെ നമുക്ക് വില ഇപ്പൊൾ എന്താ പറയുക വില ഒരു മീനിൻറെ വില എങ്ങനെയാ കണക്കാക്കുകാന്നു വെച്ചാൽ അത് ആവശ്യക്കാരനുസരിച്ചു ചിലപ്പൊൾ ലേലം ചെയ്യാന് പറഞ്ഞാൽ അവര് ലേലം വിളിക്കുന്ന പോലെയായിരിക്കും ഇപ്പൊൾ കരിമീനൊക്കെ ലേലം വിളിച്ചെടുക്കുമ്പോൾ നല്ല വില കിട്ടും എന്താ പറയുക ചിലസമയത്തു നാന്നൂറ് നാന്നൂറ്റമ്പത് കിലോന് തൊള്ളായിരം ആ റേഞ്ചിലേക്കൊക്കെ പോകും അപ്പൊൾ അത് നല്ല എങ്ങനെയാണോ വച്ചാൽ എല്ലാ സീസണിലും കിട്ടില്ല അപ്പൊൾ കിട്ടു അതായത് കിട്ടാണ്ടാകുമ്പോൾ കിട്ടണ സമയത്തു അത്യാവശ്യം നല്ല ആൾക്കാരും ഉണ്ടാകും വിളിക്കാനും വിളിക്കാനൊക്കെ അപ്പൊൾ അതിൻ്റെതായൊരു വിലയും കാര്യങ്ങളൊക്കെ കിട്ടും